അതേല്ലൊ എവിടുന്നാണ് വിളിക്കുന്നത് പത്തനംതിട്ട ജില്ലേന്ന് ആ പറഞ്ഞോളൂ നിങ്ങളുടെ എന്ത ഏത് രീതീലുള്ളതാണെന്ന് പറയാമോ

അപ്പോൾ നിങ്ങൾ എന്ത് മാത്രം വേണ്ടീട്ടാണ് എൺപത് സെൻ്റ അപ്പം നിങ്ങൾ ഏതാണ് റേറ്റ് ഒക്കെ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ഒരു സെൻ്റിന് നമ്മൾ നമ്മൾ എൻ്റെ നമ്മുടെ കൈവശം ത് സെൻ്റിന് ഒരു ലക്ഷം രൂപ തോ പിന്നെ തൊട്ടുള്ളതുണ്ട് പിന്നെ ഇച്ചിരി ഉള്ളിലൊട്ടൊക്കെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലൊരു എൺപത് എൺപത്തഞ്ചിനൊക്കെ റെയ്റ്റിലായിട്ട് ഇങ്ങനെ പോവുന്നു റോഡ് സൈഡ് വെള്ളം പിന്നെ സ്കൂള് ഇതൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തിന് മേലോട്ട് വരെ ഒക്കെ പോവുന്നുണ്ട് പിന്നെ പാടം നികത്തിയൊക്കെയുള്ള വസ്ത്തുക്കളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിന് ഏതാ താല്പര്യം എന്ന് വെച്ചാൽ അറിയിച്ചാൽ അറീച്ചാൽ മതിയാകും പിന്നെ എൺപത് സെൻ്റ സ്ഥലം അത് നിങ്ങൾക്ക് ഞങ്ങളന്നെ തന്നാൽ പ്ലോട്ടായിറ്റ് വിൽക്കാനാണോ അതോ നിങ്ങൾക്ക് അതൊന്നിച്ച് വിറ്റിട്ട് പെരയോ വീടോ വസ്തുവെല്ലോ പെര വെക്കാൻ വേണ്ടിട്ടാണോ

എല്ലാം വേണം ഓക്കെ ആ ആ അപ്പോൾ പിന്നെ ഞങ്ങളുടെ റേറ്റ് ഒക്കെ നിങ്ങൾക്കറിയാവല്ലോ കമ്മീഷനൊക്കെ എങ്ങനാണെന്നൊക്കെ അറിയാവല്ലോ ആ നിങ്ങളേ എങ്ങനാണ് റേറ്റ് എങ്ങനെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കമ്മീഷൻ ഇപ്പം ഒരു ലക്ഷം രൂപയ്ക്ക് ഇരുപതിനായിരം രൂപായാണ് കമ്മീഷൻ കൂടുതലല്ലേന്ന് ചോദിച്ചാൽ ഇപ്പം വസ്തു ഒക്കെ കിട്ടാൻ വലിയ പാടാണ് അപ്പം ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടി ഇപ്പോൾ നിങ്ങളിപ്പോൾ എത്ര ലക്ഷം രൂപ വരെയാണ് നിങ്ങൾ ഇത് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന എൺപത് ലക്ഷം രൂപ ആ ആ ആ അൻപത് ലക്ഷം രൂപ അൻപത് ലക്ഷം രൂപായ്ക്ക് എൺപത് സെൻ്റ സ്ഥലമൊന്നും കിട്ടാൻ വഴി ഇല്ലല്ലോ ഇത്രേം ഇത്രേം സൗകര്യമുള്ളതൊക്കെ കിട്ടാനായിട്ട് പാടാണ് ആ ആ അൻപത് ലക്ഷത്തിലൊതുങ്ങും പോലെ നിൽക്കണോ അപ്പോൾ പിന്നെ പള്ളീം പള്ളിക്കൂടോ പിന്നെ റോഡു ഒക്കെ ഇച്ചിര ഉള്ളിലോട്ടൊക്കെ ആയിരിക്കും ജസ്റ്റ് നമുക്ക് ഒരു വണ്ടി പോയി നമ്മുടെ ആവശ്യത്തിന് ഓരോട്ടോയൊക്കെ കയറി പോകാനുള്ള വഴിയും സൗകര്യമൊക്കെ അന്നേരത്തിന് കാണത്തുള്ളായിരിക്കും അപ്പോൾ അത്യാവശ്യം സൗകര്യങ്ങൾ കാണും അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളു അല്ലാതെ മെയിൻ റോഡ് സൈഡൊന്നും ഇപ്പം അൻപത് രൂപ അൻപത് ലക്ഷം രൂപായ്ക്ക് എൺപത് സെൻ്റ സ്ഥലമൊന്നും കിട്ടാനായിട്ട് വഴിയില്ല

പിന്നെ നിങ്ങൾ ആ നിങ്ങളെന്താന്ന് വെച്ചാൽ ആലോചിച്ച് ചെയ്യുക നമ്മുടെ റേറ്റ് ഇങ്ങനെയാണ് നിങ്ങൾക്ക് ആ പിന്നെ എന്തെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതൊക്കെ ഉള്ളു

പിന്നെ ആ പട്ടയം ഒക്കെയുള്ള ഭൂമിയാണ് ആരും ഇറക്കി വിടാനോ അല്ലെ പിന്നെ പട്ടയം ഇല്ലാത്ത ഭൂമി ആണെന്നോ അങ്ങനെ ഗവൺമെൻ്റ് ഏറ്റെടുക്കാൻ ആയിട്ട് അങ്ങനെയൊന്നും വരുത്തൊന്നുമില്ല നമുക്ക് പൂർണ്ണ ഉത്തരവാദിത്വത്തോട് കൂടിയാണ് നമ്മൾ പിന്നെ ഇതൊക്കെ തരുന്നത് സ്ഥലമോ ഒക്കെ തരുന്നത് അപ്പോൾ നിങ്ങൾ വീട്ടുകാരും ആയിട്ട് എന്താന്ന് വെച്ചാൽ അലോചിച്ച് വിവരം അറിയിക്കുക ഈ നമ്പരീൽ വിളിച്ചാൽ മതിയാവും ഓക്കെ